ഹലോ ഹലോ ഇത് കമ്പ്യൂട്ടർ ഓഫീസല്ലേ എനിക്ക് ആ ആ ഹലോ എൻ്റെ കമ്പ്യൂട്ടർ സോഫ്റ്റ് വെയർ ഒരിച്ചിരി ഇഷ്യൂ ആണേ ഇതൊന്ന് ആ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയായിരുന്നു കുറച്ച് ആ കുറച്ച് ആ കുറച്ച് ദിവസമായി ഭയങ്കര സ്ലോ ആണേ നെറ്റൊക്കെ ഭയങ്കര സ്ലോ ആണ് പിന്നെ വൈഫൈ ഒന്നും കിട്ടുന്നില്ല ആ അപ്പം ഒന്നു വരൂ അപ്പോൾ എനിക്ക് ഇച്ചിരി കുറേ ഈമെയിൽ കുറച്ച് അയക്കാനൊക്കെ ഉണ്ടെ കുറച്ചർജൻ്റായിരുന്നു അപ്പം എന്നത്തേക്ക് നാളെ വരാൻ വേണ്ടിയായിരുന്നു

ഇല്ല ആ ആ ഓക്കെ ഞാൻ ആ ഓക്കെ ഓക്കെ ഞാൻ ഷോപ്പിലേക്കു വരാം എവിടെയാണ് ഷോപ്പ് അത് ശരി അല്ലേ അടുത്താണ് അല്ലേ ഓക്കെ ഓക്കെ ഞാൻ ആ ഞാൻ നേരിട്ട് ഓക്കെ ഓക്കെ ആണോ ആണല്ലേ ആ

ചിലപ്പോൾ കംപ്ലെയിൻ്റ് ആ പിന്നെയും കംപ്ലെയിൻ്റ് ആകും ഓക്കെ ഓക്കെ ശരി അപ്പം നാളെ ഞാൻ വരുമ്പോൾ നേരിട്ട് വന്നേ പുതിയത് ഒരെണ്ണം എടുക്കണമെന്ന് ഉണ്ട് ഇനി നാളെ വന്നു ഞാൻ ആ അപ്പം ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ അതു ശരിയാണ് ആ അതു ശരി ശരിയാണ് അപ്പം ഞാൻ നാളെ ബഡ്ജറ്റ് നോക്കാമേ ബഡ്ജറ്റ് നോക്കിയിട്ട് എങ്ങനെ പുതിയത് എടുക്കുന്നേ എന്ന് ഞാൻ എടുക്കുക ഇല്ലെങ്കിൽ സോഫ്റ്റ് വെയർ നാളെ തന്നെ കിട്ടുകയാണെങ്കിൽ ചെയ്തു തരികയാണെങ്കിൽ എനിക്ക് വളരെ ഉപകാരം ഉണ്ടല്ലേ ആ ഹാ ഹാ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ആ ഇല്ലേ ഞാൻ ലോൺ ഓക്കെ അല്ലേ ഞാനപ്പോൾ ഓഫർ നോക്കിയിട്ടേ അപ്പം ഒരു ഓഫറിലുള്ളത് ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം ഇല്ലെ ഇപ്പം എനിക്ക് അത്യാവശ്യം ആയതു കൊണ്ടാണ് ബഡ്ജറ്റ് ഒത്തിരി വേണ്ടേ

ഓക്കെ ഓക്കെ ആ അപ്പം നേരിട്ട് ഞാൻ വന്നേക്കാമേ ഒരു പത്ത് പതിനൊന്നാകുമ്പോഴത്തേക്കും എത്തിയേക്കാം ആ ശരി ഓക്കെ ശരി എങ്കിൽ താങ്ക് യൂ മാം ഓക്കെ ഓക്കെ ആ